ഇപ്പോൾ ഞാൻ പറയാണ് എൻറ്റെ പ്രദേശത്ത് കൂടുതലായിട്ടും നമ്മൾ അങ്ങനെ ഉണ്ടാക്കാറുള്ള വിഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാണാറുള്ള വീടുകളിലൊക്കെന്ന് പറയുമ്പോൾ പണ്ട് കാലത്തൊക്കെതൊട്ടേ ഉണ്ടാക്കികൊണ്ട് വന്നിരുന്നൊരു വിഭവമാണ് പിടീം കോഴീംന്നൊക്കെ പറയുമ്പോൾ അതെല്ലാർക്കുംതന്നെ ഒരുവിധം ഇഷ്ടമായിട്ടുള്ളൊരു വിഭവമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് കാരണം എല്ലാവർക്കും കഴിക്കാനായാലും അത് വിളമ്പാനൊക്കെ ആണേലും എല്ലാവർക്കും ഇഷ്ടപെട്ട ഒരു വിഭവമാണത് പിന്നെ ഇന്നിപ്പോൾ പുറമെ നമ്മളിപ്പോൾ എന്ത് പറയാ കടകളിൽ ആയാലും ഹോട്ടലുകളിൽ ആയാലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെന്ന് ഒക്കെ കിട്ടുന്ന ഏറ്റവും ബെസ്ററ് ഫുഡ് എന്ന് പറയുമ്പോൾ പൊറോട്ടയും ബീഫും കപ്പയും ബീഫും കപ്പയും മീനും അങ്ങനത്തെ ഫുഡുകളൊക്കെയാണ് കൂടുതലായിട്ടും കണ്ടു വരുന്നത് കാരണം ഇതൊക്കെ ആളുകൾ കൂടുതലായിട്ടും ഇഷ്ടപെട്ട് വാങ്ങി കഴിക്കുകയും അവർക്ക് അവരുടെ എന്താ പറയുക രീതിയിൽ ഉണ്ടാക്കാൻ ഒക്കെ കഴിഞ്ഞാൽ നല്ല ഇഷ്ടപെട്ടൊരു വിഭവങ്ങൾ തന്നെയാണ് ഇത് കാരണം അവർക്ക് ഒക്കെ എന്താ പറയുക ഇപ്പോൾ പുറത്ത് പോയാലും ഫാമിലിക്കായാലും എല്ലാവർക്കും ഇഷ്ടപെടുന്നൊരു വിഭവം തന്നെയാണിതൊക്കെ പണ്ട് കാലം തൊട്ടേ ഈ കപ്പ എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ കൂടുതലായിട്ടും കൃഷി ചെയ്യുകയും അവർ അങ്ങനത്തെ അത് തന്നെ അവർ കൃഷി ചെയ്ത് പറിച്ച് പുഴുങ്ങുകയും അങ്ങനത്തെ കപ്പയും കൊണ്ടും എല്ലാം കൊണ്ടും എന്താ പറയാ അവർ നല്ല രീതിക്ക് തന്നെ കഴിച്ചു കൊണ്ടിരുന്ന ഫുഡുകളാണ് ഇതൊക്കെ അപ്പോൾ അവർക്കൊക്കെ എന്താ പറയാ അതൊക്കെ ഒരു എന്താ പറയാ പഴയ കാലത്തെ ഫുഡ് ആയിട്ടാണ് അവരൊക്കെ കരുതുന്നത് അപ്പോൾ അവർക്കൊക്കെ അത് വളരെ ഇഷ്ടപെട്ട ഒരു വിഭവം തന്നെയാണ് എനിക്കും അത്യാവശ്യത്തിന് എന്താ പറയാ കപ്പയും ബീഫുമായാലും കപ്പയും മീനായാലും എനിക്കും ഭയങ്കര ഇഷ്ടം ഉള്ളൊരു വിഭവം തന്നെയാണ്